ഈ പ്രദേശങ്ങളിൽ അങ്ങനെ ഹോം സ്റ്റേ സൗകര്യങ്ങളും വിദേശ സഞ്ചാരികൾക്കായാലും അല്ലാതെ ഇവിടുന്നു തന്നെ പുറത്തു വരുന്നവർക്കായാലും ഉള്ള സൗകര്യങ്ങളുണ്ട് ചില വീട്ടുകളിൽ തന്നെ ഹോം സ്റ്റേ ഒരുക്കുന്നവരുമുണ്ട് അവിടങ്ങളിലൊക്കെ ചെയ്യുന്ന സൗകര്യങ്ങളെന്നു പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് വൃത്തിയുള്ള ഒരു റൂം സ്റ്റേക്ക് കൊടുക്കുക അതു പോലെ തന്നെ വൃത്തിയുള്ളൊരു ശുചിമുറി കൊടുക്കുക പിന്നെ പോരാതെ അവർക്കു വേണ്ട ഫുഡ് വേണ്ട ഫുഡ് നല്ലതു പോലെ ഉണ്ടാക്കി കൊടുക്കുക നല്ല ഇവിടുത്തെ തനതായ രുചികൾ വിദേശികളൊക്കെ വന്നേഞ്ഞാൽ ഇവിടുത്തെ തനതായ രുചികൾ തന്നെ നമ്മൾ ഷെഫിനെയൊക്കെ വെച്ചു ചെയ്തു കൊടുക്കുന്നവരെയൊക്കെ ഞങ്ങൾ കണ്ടിട്ടുണ്ട് ഓരോരോ രീതിയിലും അവരെ കംഫർട്ടബിൾ ആക്കാവുന്ന രീതിയിൽ നമ്മൾ അവരെ കംഫർട്ടബിൾ ആക്കുന്നുണ്ട് എല്ലാ രീതിയിലുമുള്ള സൗകര്യങ്ങൾ ഒരു ഹോം സ്റ്റെയിൽ കൊടുക്കുന്നുണ്ട് അതു പോലെ തന്നെ ഇപ്പം ഈ ഒരു പ്രദേശങ്ങളിലൊക്കെ ആയതു കൊണ്ടു തന്നെ ട്രക്കിങ് ഫെസിലിറ്റീസ് കൊടുക്കാറുണ്ട് നൈറ്റായിട്ട് നൈറ്റിൽ നമ്മൾ ക്യാമ്പ് ഫയർ സെറ്റ് അപ്പ്സ് കൊടുക്കാറുണ്ട് പിന്നെ ചില ദൃശ്യ കലാരൂപങ്ങളൊക്കെ കൊണ്ടന്ന് അതവർക്ക് ദൃശ്യമാക്കാറുണ്ട് അവരെ ആസ്വദിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള അവരെ എൻകറേജ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യാറുണ്ട് അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഈ ഒരു ഹോം സ്റ്റേ ഫെസിലിറ്റീസിൽ ചെയ്യുന്നുണ്ട് പിന്നെ ചെയ്യുന്ന കാര്യങ്ങളെന്നു പറഞ്ഞു കഴിഞ്ഞാൽ അധികമായും ചെയ്യുന്നതെന്നു പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ഇവിടെ പോകാനുള്ള സ്ഥലങ്ങളിലേക്ക് ഹോം സ്റ്റേയിലുള്ള ആൾക്കാർ തന്നെ കൊണ്ടു പോകുകയും അവരെ തിരിച്ചു കൊണ്ടു സെയ്ഫ് ആയിട്ട് എത്തിക്കുകയും ചെയ്യാറുണ്ട് ഇപ്പോൾ ട്രക്കിംങ്ങെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വളരെ മനോഹരമായി വ്യൂസ് പിന്നെ അവർക്കു വേണ്ടിയിട്ടുള്ള ഫോട്ടോസ് എടുത്തു കൊടുക്കുക അവർക്കു വേണ്ടിയുള്ള വീഡിയോസ് എടുത്തു കൊടുക്കുക അങ്ങനെയും പല കാര്യങ്ങൾ ചെയ്യാറുണ്ട് ഇവിടെ ധർമ്മശാലകളും സൗക സാമൂഹ്യ താമസസ്ഥലങ്ങളോ എൻ്റെ ഈ പ്രദേശങ്ങളിൽ ഞാൻ കണ്ടിട്ടില്ല ഇന്നു വരെ ഞാൻ അവിടെ ഒന്നും സന്ദർശിച്ചിട്ടുമില്ല പേ ഞാൻ താമസിക്കുന്നിടത്ത് ഇങ്ങനെയൊരു സ്ഥലം ഞാൻ കണ്ടിട്ടില്ല സൗജന്യമായ സമയത്ത് ഇവിടെയെല്ലാം പ്രൈവറ്റ്കാരാണ് നടത്തുന്നത് പ്രൈവറ്റായിട്ട് ആൾക്കാരെടുത്താണ് നടത്തുന്നത്